വികസനത്തിൻ്റെയും വളർച്ചയുടെയും കാര്യത്തിൽ വയനാട് ജില്ല നേരിടുന്ന പ്രധാന വെല്ലുവിളികളും അവസരങ്ങളും എന്ന് വെച്ചാൽ മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് വയനാട് ജില്ലക്ക് പൊതുവെ വികസനം കുറവാണ് എങ്കിൽ പോലും ഇക്കാലഘട്ടത്തിലെ ഒരുപാട് വികസന വികസനവുമായി ബന്ധപ്പെട്ട് വളർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാടാൾക്കാർ മറ്റ് ജില്ലകളെ ജില്ലകളിലേക്ക് വിനോദസഞ്ചാരത്തിനും മറ്റും പോകുകയോ എൻ പോയി പോവുകയും എന്നാൽ വയനാട്ടിൽ കുറവായിരുന്നു അ അക്കാലകളിൽ എന്നാലിന്ന് ഒരു വിധപ്പെട്ട എല്ലാവരും എല്ലാ ജില്ലയിൽ നിന്നും വയനാട്ടിലേക്ക് ഓരോ ദിവസം കൂടുന്തോറും ആൾക്കാര് വിനോദസഞ്ചാരത്തിനായി എത്തിപ്പെടുന്നുണ്ട് അതുകൊണ്ടു തന്നെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ വിനോദ സഞ്ചാര ഒന്നൂടെ ഒന്നൂടെ വിപുലമാക്ക വിപുലമാക്കുകയും അതുപോലെ ഒരുപാട് സ്ഥലങ്ങളറിയപ്പെടാത്ത വിനോദ സ്ഥലങ്ങൾ മറ്റുള്ളവരിലേക്ക് പരസ്യമായി അല്ലെങ്കിൽ ഒരറിവ് അവർക്ക് എവിടെയാണ് സ്ഥലം എങ്ങനെ എന്താണ് ഇതിനെ പറ്റിയുള്ള ഒരു അറിവ് മറ്റുള്ളവർക്ക് കൂടെ പകർന്ന് കൊടുത്താൽ ഇനിയും ഒരുപാട് വിനോദ വിനോദ സഞ്ചാരികള് വീണ്ടും വയനാട്ടിലേക്ക് എത്തി വയനാട്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റും അവർക്ക് അതുപോലെ തന്നെ കൃഷിയും കൃഷിയും ജൈവകൃഷി ഇവടെ വയ വയനാട്ടിൽ വെച്ചാൽ ഒരുപാട് രാസവളങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ഫെഡ്ലൈറ്റ് റിസെർസൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയുന്നത് ആൾക്കാർക്കും അതുപോലെ ജനങ്ങൾക്കും അതുപയോഗിക്കുന്നവർക്കും ഒക്കെ വളരെ അധികം ദോഷകരമാണ് എന്നാൽ ഇവിടെ വയനാട്ടിൽ ജൈവ കൃഷി കൂടുതലായിട്ടും കണ്ടു കണ്ടുവരുന്നത് കൊണ്ടുതന്നെ ജൈവ ഒന്നുകൂടെ കൃഷിയെ വിപുലമാക്കുകയും അതുപോലെ തന്നെ ജൈവ വളം കൂടുതലായിട്ട് എത്തിച്ച് കൊടുക്കുകയും കു കുറഞ്ഞ നിരക്കിൽ അല്ലെ കുറഞ്ഞ പൈസ നിരക്കിൽ എത്തിക്കുകയും കൃഷി ഒന്നൂടെ മെച്ചപ്പെട്ട രീതിയിൽ ആക്കാനും എല്ലാവരും വയനാട്ടിലേക്കാണ് ഈ പ പച്ചപ്പ് ഹരിതം എന്നൊക്കെ ഉള്ളൊരു എന്നൊക്കെയുള്ളൊരു മൈന്റാണ് മറ്റുളള ജില്ലകളിലെ ആൾക്കാർക്ക് ഇവിടെ വയനാട് ജില്ലയെന്ന് വെച്ചാൽ അതുകൊണ്ടുതന്നെ ഇത് ഒരു വലിയൊരു കാര്യമാണ് ഇത് ഈ കൃഷിയും വിനോദ സഞ്ചാരം അതൊക്കെ ഒന്ന് മെച്ചപ്പെട്ടാൽ ഒന്നൂടെ വികസനത്തിന് വഴിയൊരുക്കുന്നതാണ് ഈ വയനാട് ജില്ലക്ക് വേണ്ടീട്ട്